ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ത്യൻ സിനിമ എന്നു പറയണത് കുറേ അധികം ഭാഷകളിലെ സിനിമ മേഖലയെ ഒരുമിപ്പിച്ചു ചേർത്തു നിർത്തുന്നൊരു ഘടകമാണ് അപ്പം നമ്മൾ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി അങ്ങനെ ഒട്ടനവധി ഭാഷകൾ പിന്നേ ഇഷ്ടംപോലെ സിനിമകൾ ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തും അമ്പതും സിനിമകളൊക്കെ റിലീസാവുന്നുണ്ട് അതിൽ അനവധി അനവധി നടന്മാർ നടിമാർ പിന്നെ ഗായകന്മാർ ഗായികമാർ അങ്ങനെ നമുക്ക് കുറേ പ്രഗത്ഭമായ ആൾക്കാരെ നമ്മുക്കതിൽ കണ്ടുമുട്ടാൻ പറ്റും ഇന്ത്യൻ സംഗീതവും അതുപോലെത്തന്നെ ഏറ്റവും മികച്ചതാണ് ഇപ്പോൾ എനിക്ക് ഞാനേകദേശം എല്ലാതരം സിനിമയും ഇപ്പോൾ ഹിന്ദി സിനിമ കാണാറുണ്ട് മലയാള സിനിമ കാണാറുണ്ട് തമിഴ് കാണാറുണ്ട് അതുപോലെ സീരിയൽ ഞാനങ്ങനെ കാണാറില്ല പക്ഷേ എന്നാലും കുറച്ചൊക്കെ നമ്മളെ ഓൺലൈനായിട്ടുള്ള ഈ വെബ് സീരീസുകളൊക്കെ കാണാറുണ്ട് ഇപ്പോൾ മികച്ച നടൻ അങ്ങനെയില്ല എല്ലാവരും ഏകദേശം ഒരേ ഒരു ക്യാരക്ടർ റോള് നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് അപ്പോൾ നമുക്കിഷ്ടവും കാര്യങ്ങളൊക്കെ വരണത് സിനിമ ഗാനങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് തമിഴ് പാട്ടുകൾ കുറച്ച് കൂടുതലിഷ്ടമാണ് പിന്നെ കലാഭൻ മണിയുടെ പാട്ടുകൾ ഇഷ്ടമാണ് യേശുദാസ് അതുപോലെ ജയരാജൻ പിന്നേ കലാഭൻ മണി അങ്ങനുള്ള ആ പാട്ടുകാരെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം